നമ്മുടെ കൃഷിയിടങ്ങളിൽ ഇപ്പോൾ കൂടുതലായിട്ടും വരുന്നത് അതായത് നമുക്ക് നശി ഉപദ്രവകാരിയായിട്ടുള്ള മൃഗങ്ങള് എന്ന് പറയണ പറഞ്ഞാൽ പന്നി പന്നി നമുക്ക് ഭയങ്കര ഒരു ശല്യമാണ് അതായത് അത് രണ്ട് ടൈപ്പ് പന്നിയുണ്ട് പിന്നെ ചെറിയ മുള്ളൻ പന്നിയുണ്ട് രണ്ടും ഒരേ പോലെ നമുക്ക് കൃഷിനെ നശിപ്പിക്കാന് അല്ലെങ്കിൽ അവര് കൃഷിനെ നശിപ്പിക്കുക അല്ല അവര് അവര് ഒരു രീതില് നോക്കുവാണ് എന്ന് പറയാന്ന് പറഞ്ഞാൽ അവർ അവർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളും എങ്ങനെങ്കിലും കിട്ടുമൊ എന്നുള്ളൊരു ഇതില് നോക്കുവാണ് പക്ഷെ നമുക്ക് അത് ഒരു ഉപദ്രവമായി മാറുന്നത് എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഈ വാഴ അതുപോലെ ചേമ്പ് ചേന മഞ്ഞള് സർവ സാധനം ഇപ്പം എന്ത് നമ്മള് മണ്ണിൽ കുത്തിയിട്ടാലും കൊള്ളിയായാലും കപ്പയായാലും പിന്നെ അങ്ങനത്തെ സാധങ്ങളൊക്കെ മണ്ണിൽ കുത്തിയിട്ട് കഴിഞ്ഞാൽ അവര് വന്നിട്ട് അത് അവർക്ക് അറിയാലോ ഏകദേശം ഇപ്പോൾ കൂർക്കയായാലും ഈ നമ്മുടെ വണ്ടിയുടെ മുകളിൽ ഉള്ള മത്തൻ കുമ്പളം അങ്ങനത്തെ ഏത് ഐറ്റം ആയാലും അവര് വരുമ്പോൾ അവർക്ക് അതിൻ്റെ മണവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവര് സാധനം ഏകദേശം മൂത്ത് നിക്കാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പം അവര് എന്താ ചെയ്യാ അവര് നേരെ കറക്റ്റ് ആ മുക്കാരാവണ സമയത് വന്ന് കറക്റ്റായിട്ട് നമ്മൾ അറിയ പോലുമില്ല മോളിൽ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല പക്ഷെ കറക്റ്റ് അതിൻ്റെ അടിയില് ഫുൾ വേറെ ഒരു സ്ഥലത്ത് നിന്ന് തുരന്ന് വന്നിട്ട് എന്താ പറയുക ഒരു സൈഡ് കുത്തിമറിക്കും ഫുള്ളായിട്ട് തിന്നിട്ട് പോകും പിന്നെ മണ്ണിൻ്റെ അടിയിൽ കൂടെ പണിയെടുക്കുന്നതാണ് പെരുച്ചാഴി പെരുച്ചാഴി മണ്ണിൻ്റെ അടിയിൽ നമ്മൾ എന്ത് കുത്തിയിട്ടാലും അവര് കറക്റ്റായിട്ട് വന്നിട്ട് ഇപ്പോൾ കപ്പ കൊള്ളി പിന്നേ നമ്മുടെ കൂർക്ക ചേമ്പ് അങ്ങനത്തെ സാധങ്ങളൊക്കെ ചേന പിന്നെ അവർ അത്രക്ക് ഇതില്ല മറ്റേ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഏകദേശം അവര് വന്നിട്ട് കൃത്യമായിട്ട് തിന്നിട്ട് പോകും അവര് നമ്മൾ അറിയ പോലുമില്ല സംഭവം ഇപ്പൊൾ ചേന നമ്മള് കുറേ കൂർക്കയും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാകും അപ്പം അത് ഏകദേശം വെളഞ്ഞു നിക്കണ സമയത്ത് അവര് ഒരു സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിൽ അത് അങ്ങനെ കാണാത്ത രീതിയില് സൈഡിൽ കൂടെ ഫുള്ളങ്ങനെ അടിയില് ഫുള്ള് മൊത്തം തിന്നിട്ട് പോയിട്ടുണ്ടാകും നമ്മൾ വലിച്ച് നോക്കുമ്പോൾ നമുക്ക് ആ നേരത്ത് നമുക്ക് ഒന്നും കിട്ടൂല അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് പ്രശ്നങ്ങൾ വരുന്നത്